എനിക്കിപ്പോൾ എൻ്റെ ജന്മനാടിനെക്കുറിച്ച് പറയാണെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെൽ എൻ്റെ വീട് തന്നെയാണ് അവിടെ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻറ്റെയും കൂടെ ജീവിക്കുന്ന സമയം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ജന്മനാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടിയാണ് ഞാൻ മാനന്തവാടി ഹോസ്പിറ്റല് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റിലാണ് ജനിച്ചത്

അങ്ങനെ ഒരുപാട് രസമായിരുന്നു അന്നത്തെ കാലം എനിക്ക് ഏറ്റവും അത് ചോദിക്കാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടം എൻ്റെ ജന്മനാടിൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് തന്നെയാണ്